ഹലോ ഇത് ആര് കെ ഹോട്ടലാണോ ആ ഞാന് കുറച്ച് മുന്നെ ഒരു ഓര്ഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓര്ഡര് നമ്പര് നൂറ്റി ഇരുപത്തി ഒൻപത് അതെ പേര് സന്ധ്യ മുടവന് മുകള് ഹൗസ് നമ്പര് പന്ത്രണ്ട് അതെ അത് തന്നെ അല്ല ക്യാന്സല് ചെയ്യാനല്ല കുറച്ചു കൂ ടെ ഓര്ഡറ് ചെയ്യാന് വേണ്ടിയിട്ടായിരുന്നു ആ ഞാൻ ഒരു മൂന്ന് മണിക്കായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് എനിക്ക് ആറ് മണിക്ക് വേണം എന്നാണ് പറഞ്ഞിരുന്നത്

ആ നേരത്തെ ഓര്ഡറ് ചെയ്തതോ ആ ഞാന് പറയാം നേരത്തെ ഓര്ഡര് ചെയ്തിരുന്നത് പതിനഞ്ച് പൊറോട്ട ഒരു ബട്ടര് ചിക്കന് ഒരു തന്തൂരി ചിക്കന് രണ്ട് ചിക്കന് ഫ്രൈയുമായിരുന്നു ആ മൂന്ന് മണിക്കാണ് ഓര്ഡറ് ചെയ്തത് ആ ആ ഇനി ഓര്ഡറ് ചെയ്യാനുള്ളത് പറയട്ടെ ഇതിന്റെ കൂടെ കുറച്ചു കൂടെ വേണമായിരുന്നു ആ അപ്പം എഴുതിക്കോളൂ ഒരു പനീര് ബട്ടര് മസാല രണ്ട് ചില്ലി ചിക്കന് ഒരു ചിക്കന് ഫ്രൈ ഒരു ഫുള് അല്ഫാം അ ഫുള്ളാണ് വേണ്ടത് ഫുള് അല്ഫാമാണ് വേണ്ടത് ഈ അല്ഫാമിന്റെ കൂടെ ഇപ്പം എത്ര കുബ്ബൂസാണ് കിട്ടുന്നത് അഞ്ചെണ്ണം അല്ലെ ആ അപ്പം അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ പത്തെണ്ണം കൂടെ വയ്ക്കാമോ ആ കുബ്ബൂസിന് എത്രയാണ് പതിനഞ്ച് രൂപ ഓക്കെ ഓക്കെ ആ അപ്പോൾ മൊത്തം പതിനഞ്ച് കുബ്ബൂസ് വേണം പിന്നെ ഇതിന്റെ കൂടെ സാലഡ് കിട്ടുമോ ആ വെജിറ്റബിള് സാലഡ് അത് ഈ അല്ഫാമിന്റെ കൂടെ കിട്ടില്ലെ ആ അതും വേണം ഓക്കെ പിന്നെ ഒരു പത്ത് പെറോട്ടയും കൂടെ അതെ അതെ ഇപ്പം ഇത്രയാണ് വേണ്ടത് ഇനി ഇപ്പം നേരത്തെ പറഞ്ഞതും ഇപ്പോഴത്തെ കൂടെ പറയണൊ ഒന്നു കൂടെ എല്ലാം കൂടെ ഒന്നു കൂടെ പറയാം ഒന്നു ചെക്ക് ചെയ്തോളു ആ പറയട്ടെ ഒരു പനീര് ബട്ടര് മസാല രണ്ട് ചില്ലി ചിക്കന് മൂന്ന് ചിക്കന് ഫ്രൈ ഒരു ഫുള് അല്ഫാം പതിനഞ്ച് കുബ്ബൂസ് പിന്നെ ഈ അല്ഫാമിന്റെ കൂടെ ഉള്ള സാലഡ് അത് അതിന്റെ കൂടെ വരുമല്ലെ ആ പിന്നെ ഒരു ഇരുപത്തഞ്ച് പെറോട്ട ഒരു ബട്ടര് ചിക്കന് ഒരു തന്തൂരി ചിക്കന് ആ ഇത്രയും തന്നെ ആ എല്ലാം കറക്റ്റ് ആണല്ലോ ആ ഓക്കെ ഇത് എത്ര രൂപയായി എല്ലാം കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഈ അല്ഫാമിന് എത്ര രൂപയാണ് അറുന്നൂറല്ലെ ആ ശരി ശരി അപ്പം ഇത് എത്ര മണിക്ക് കിട്ടും ഒരു ആറ് മണിക്ക് കിട്ടാന് പറ്റുമോ ആറരയാവും അല്ലെ ആ കുഴപ്പമില്ല ആറരയ്ക്ക് എത്തിച്ചാൽ മതി അപ്പോൾ ഞാന് പൈസ ഞാന് കൊണ്ട് വരുന്ന ആളുടെ കൈയിൽ കൊടുത്താൽ മതിയല്ലൊ ആ ശരി ആറരയ്ക്ക് തന്നെ എത്തിക്കണെ താങ്ക് യു